ഹലോ എൻ്റെ പേര് ഡെൽന എന്നാണ് ഞാൻ നിങ്ങളുടെയൊരു ഡെലിവറി സർവ്വീസിനെ കുറിച്ചൊരു പരാതി തരാനായിട്ടാണ് വിളിച്ചത് എൻ്റെ വീട് കുമരകത്താണ് ഞാൻ നിങ്ങളുടെ ഡെലിവറി സർവ്വീസ് വഴി കുറച്ചു ഫുഡ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ഡെലിവറി ഏജൻറ്റ് പേര് എൻറ്റോർമ്മ ശരിയാണെങ്കിൽ രാഹുലെന്നാണ് പേര് ആളുടെ പെരുമാറ്റം വളരെ മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഞാൻ എൻറ്റഡ്രസ്സ് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിരുന്നതാണ് പക്ഷെ ആൾ വേറെവിടെയോ പോയി നിന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കുകയും ഞാനഡ്രസ്സ് തെറ്റിച്ചു കൊടുത്തുവെന്നു പറഞ്ഞ് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എനിക്കതിൽ നല്ല പരാതിയുണ്ട് കാരണം ഞാൻ അഡ്രസ്സ് തെറ്റിച്ചാണ് കൊടുത്തതെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഞാനഡ്രസ്സ് തെറ്റിച്ചല്ല കൊടുത്തത് ഞാൻ കൃത്യമായിട്ടാണ് എൻ്റെ അഡ്രസ്സ് കൊടുത്തത് എന്നിട്ടയാൾ വെറുതെ എന്നോട് ഇങ്ങോട്ടു കയറി ചൂടാകുകയും ദേഷ്യപ്പെടുകയുമൊക്കെ ചെയ്തു അപ്പോൾ ഒരു ഡെലിവറി ഏജൻ്റെന്നു പറഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ടു പെരുമാറേണ്ടവർ ഉത്തരവാദിത്വം ഡെലിവറി ഏജൻറ്റ്സിന് ഇല്ലെന്നുള്ളതാണ് എനിക്കറിയാൻ മേലാത്തത് നിങ്ങളോട് അത് പരാതിപ്പെട്ടാലെ കാര്യമുള്ളുവെന്നു തോന്നി കാരണം ആ ആൾ എൻ്റടുത്തിങ്ങനെ പെരുമാറിയെങ്കിൽ മറ്റുള്ളവർ കസ്റ്റമേഴ്സിൻറ്റടുത്തും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനും മോശമായിട്ടു പെരുമാറിയിട്ടുണ്ടോയെന്നു പറയാൻ പറ്റത്തൊന്നുമില്ല സോ എനിക്ക് ഇതിലെന്തെങ്കിലുമൊരു നടപടി ഉണ്ടാകണം ഡെലിവറി ഏജൻറ്റിനെ നിങ്ങൾ വിളിച്ചു വാൺ ചെയ്യുകയും അതുപോലെ തന്നെ തക്കതായ എന്തെങ്കിലൊരു നടപടി എടുക്കുകയും ചെയ്യണം